നവജാതശിശുവിനെ അതിൻ്റെ ആദ്യ വർഷത്തിൽ അനുഷ്ഠിക്കുന്ന വ്യത്യസ്ത ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് ജനിച്ചുകഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അതു ജനിച്ച് ഒരു ഇരുപത്തി എട്ട് ദിവസം കഴിയുമ്പോഴേത്തേക്കിലും അതിനെ ഒരു പേരിടുന്ന ഒരു ചടങ്ങുകൾ ഹിന്ദു ഹിന്ദുമതത്തിൽ ആണേലും എല്ലാ മതത്തിലും ഉണ്ട് അത് വളരെ ആചാരപരമായിട്ടാണ് നടത്താറുള്ളത് അത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഇരുപത്തെട്ട് ദിവസത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പേരിട്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ആ കുഞ്ഞിന് ഒരു ആറുമാസം ഒക്കെ ആകുമ്പോഴത്തേക്കും ആണ് കുഞ്ഞിന് ചോറൂണ് എന്നു പറഞ്ഞൊരു ഹിന്ദുമതത്തിലെ ചോറൂണ് എന്നു പറഞ്ഞൊരു ചടങ്ങ് ഇപ്പോൾ ആൺ കുഞ്ഞുങ്ങൾക്ക് ആണെങ്കിൽ അഞ്ചാം മാസത്തിലും പെൺ കുഞ്ഞുങ്ങൾക്ക് ആണെങ്കിൽ ആറാം മാസത്തിലും ആണ് ഈ ചോറൂണ് പറഞ്ഞൊരു ചടങ്ങ് നടത്തുന്നത് അത് ആ കുഞ്ഞിന് ആണെങ്കിൽ അതിനു ശേഷം ആണ് ആ കുഞ്ഞുങ്ങക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആഹാരങ്ങൾ ഒക്കെ കൊടുക്കുന്നത് പിന്നീട് കുഞ്ഞിന് എന്താ ഒരു ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആണ് ഒരു എന്താ പിറന്നാൾ ആഘോഷിക്കുന്നത് പിറന്നാളെന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ ആണ് ആഘോഷിക്കുന്നത് ഈ ചോറൂണ് ആണെങ്കിലും എന്താ പിറന്നാൾ ആണെങ്കിലും എന്താ ഈ എല്ലാം വളരെ നല്ല രീതിയിലാണ് അനുഷ്ഠിക്കുന്നത് എല്ലാ ബന്ധുമിത്രാദികളെയും വിളിക്കുകയും നാട്ടുകാരെ എല്ലാം വിളിച്ച് അവർക്ക് ആഹാരം കൊടുക്കുകയും എല്ലാം നല്ല രീതിയിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഇത് എല്ലാം നടത്താറുള്ളത് പിന്നിട് കുഞ്ഞിന് ഒരു എന്താ ഒരു എഴുത്തിന് ഇരുത്തുന്നതിന് ഒരു രണ്ട് വയസ്സ് രണ്ടര വയസ്സൊക്കെ ആവുമ്പോഴത്തേക്കും മൂന്ന് വയസ്സിന് മുന്നേ മുന്നിപ്പുറമായിട്ട് കുഞ്ഞിനെ എഴുത്തിന് ഇരുത്തുക എന്നൊരു ചടങ്ങ് എല്ലാ മതക്കാരും വിശ്വസിക്കുന്ന ഒരു ചടങ്ങാണ് അത് ഇപ്പോൾ ആ അവർ ഏതു മതത്തിലാണ് വിശ്വസിക്കുന്നത് അവരുടെ ഇഷ്ട ദൈവങ്ങളായ ദൈവങ്ങളുടെ അടുത്ത് പോയാണ് ഈ അക്ഷരങ്ങൾ എഴുതിക്കുന്നത് ആദ്യാക്ഷരം കുറിക്കുന്നത് അതിനുശേഷം ആണ് കുഞ്ഞുങ്ങളെ വിദ്യാരംഭത്തിലേക്ക് കടക്കുന്നത് ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് ഒരു ആചാര വിദ്യാഭ്യാസ സംബന്ധമായിട്ട് ഒരു വിധം പ്രധാനപ്പെട്ട ഒരു ആചാര അനുഷ്ഠാനമാണ് അതിനുശേഷം അതിനുശേഷമാണ് കുഞ്ഞുങ്ങളെ അത് സ്കൂളുകളിൽ ആണെങ്കിലും അംഗനവാടികളിൽ ആണെങ്കിലും വിടുന്നത് അതിനുശേഷമാണ് പിന്നെ പിന്നീട് പഠനകാലമാണ് കുഞ്ഞുങ്ങൾക്ക് ഉള്ളത് പിന്നീട് ഒരു പെൺകുഞ്ഞുങ്ങൾ ആണെങ്കിൽ പെൺ കുട്ടികൾ ആണെങ്കിൽ ഒരു എന്താ ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സൊക്കെ ആവുമ്പോഴത്തേക്കും പ്രായപൂർത്തിയാകുന്ന ഒരു ചടങ്ങുണ്ട് അത് ഹിന്ദുമതത്തിൽ ആണെങ്കിൽ അതിന് വളരെ വിശേഷപ്പെട്ടതാണ് വിശേഷപ്പെട്ട ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് അന്നേരം വളരെ സന്തോഷം നിറഞ്ഞ കുറച്ച് ദിവസങ്ങൾ ആയിരിക്കും അന്ന് നടക്കുന്നത് ആദ്യത്തെ ഏഴു ദിവസങ്ങളിൽ കുഞ്ഞുങ്ങക്ക് പ്രത്യേകം ആഹാരങ്ങളും മധുര പലഹാരങ്ങളും ഒക്കെ ധാരാളമായിട്ട് ഓരോരുത്തര് കൊണ്ട് കൊടുക്കുകയും ആഘോഷിക്കാറും ഒക്കെയുണ്ട് അതിനുശേഷം പിന്നീട് സ്കൂൾ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ പോയതിനുശേഷം പഠിച്ച ജോലിയൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടു പിന്നെ വിവാഹമാണ് അതും ഹിന്ദു മതപ്രകാരം അല്ലെങ്കിൽ ഏതു മതത്തിൽ ആണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വളരെ നല്ല രീതിയിൽ ആണ് അതും ആഘോഷിക്കുന്നത്